ഇതു പൂച്ചെടികളും അടുക്കളത്തോട്ടങ്ങളും മലയാളികൾക്ക് അതു വളർത്തുക അത് അതിൻ്റെ തോട്ടങ്ങളുണ്ടാക്കുകയെന്നതു മലയാളികൾക്കേറ്റവും ആ ഇപ്പോൾ ഇപ്പോള് ഈയിടെയായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് വേറെയൊന്നുമല്ല നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കാനും ഈ പൂച്ചെടികൾ നമ്മുടെ മനസ്സിനു സന്തോഷവും അതുപോലെ തന്നെ വീടിൻ്റെ അന്തരീക്ഷത്തിനു കുളിർമയും തണുപ്പു നൽകുന്നതാണ് ഓക്സിജൻ ഉൽപാദിപ്പിക്കാനും കാർബണ് ഡയോക്സൈഡ് നമ്മളെത്രയോ ചെറുപ്പത്തില് പഠിച്ചിട്ടുള്ളതാണത്ത് വലിച്ചെടുക്കുന്നതിനും ഈ ചെടികൾക്കു വളരെയധികം പ്രാധാന്യമര്ഹിക്കുന്നുണ്ട് ഒരുപാടു രോഗങ്ങളിൽ നിന്നും ആ രക്ഷപ്രാപിക്കാനും ഇതുപകരിക്കും അപ്പോഴത് ആ ഇത്തരത്തിലുള്ള നല്ല വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് മലയാളികൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളെന്നാണു ഞാൻ ഞാൻ കരുതുന്നത്